ഹലോ എ വൺ ക്യാബ് ഏജൻസി അല്ലെ അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു ട്രിപ്പ് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഏജൻസിയിൽ തിരുനെൽവേലി ടു ചെന്നൈ ട്രിപ്പ് ഇരുപത്തി നാലാം തീയതി വേ ഇരുപത്തി നാലാം തിയതിത്തേക്ക് എനിക്കിപ്പം കാ ട്രിപ്പിൻ്റെ ആവശ്യം ഇല്ല അപ്പം എനിക്ക് ആ റീഫണ്ട് ഒന്നു വേണമായിരുന്നു ഈ ഒരു നാലായിരം രൂപ അഡ്വാൻസ് തുക ആയിട്ട് ഞാൻ അടി അടച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ ആവശ്യം വീട്ടിൽ ഒരു മരണം ആയതു കൊണ്ട് നമ്മൾ ചെന്നൈയിലോട്ടു പോകുന്നില്ല അപ്പോൾ എനിക്ക് ആ നാലായിരം രൂപ റീഫണ്ട് ചെയ്യാനുള്ള പ്രൊസീജേഴ്സ് എന്താണെന്നു പറയുകയാണെങ്കിൽ ഞാൻ അതു ചെയ്യും എനിക്ക് വേ വളരെ വേഗം തന്നെ ആ പൈസ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ആവശ്യമുണ്ട് എന്താണ് അതിൻ്റെ ഇൻഫോർമേഷൻസ് എന്നുള്ളത് ഒന്നു അറിയിക്കാമോ